നൃത്തംന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ നൃത്തം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളു തന്നെയാണ് ഒരു രണ്ടു വർഷത്തോളം നൃത്തം പഠിച്ചിട്ടുമുണ്ട് പക്ഷേ പിന്നീട് എന്താണ് പറയാ എൻ്റെ വലിയ പഠനം പഠനത്തിനുവേണ്ടിയിട്ട് എനിക്കത് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് വീട്ടുകാരുടെ ആവശ്യപ്രകാരം എനിക്ക് അത് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ നൃത്തം ആ എന്താണ് പറയാ പഠിക്കുന്നില്ല പക്ഷേ എന്നാൽ എന്നിരുന്നാൽ പോലും നാട്ടിൽ ഒരു നൃത്തത്തിൻ്റെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ കളിക്കാറുണ്ട് ചെയ്യാറുണ്ട് നൃത്തം ചെയ്യാറുണ്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറയാറുള്ളത് ഇപ്പം ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ ആയിക്കോട്ടെ അവിടെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ പോലും ഞാൻ നൃത്തം ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെന്താച്ചാൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാധിക്കില്ല കാരണം അതിൻ്റെതായ ചിലവേറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഞാനാ നൃത്തം വീണ്ടും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാറുണ്ട്